ഹലോ ഊമ്പറിൻ്റെ ഡ്രൈവറല്ലെ ഞാൻ എറണാകുളത്തേക്കൊരു ക്യാബ് ബുക്ക് ചെയ്തിരുന്നു ഇപ്പം എനിക്ക് മെസ്സേജ് വന്നു റീച്ച്ഡ് എന്ന് പറഞ്ഞിട്ട് പക്ഷേ കാണുന്നില്ലല്ലൊ വണ്ടി ഞാൻ വീട്ടിൻ്റെ മുന്നിൽ തന്നെ വെയ്റ്റ് ചെയ്യുന്നുണ്ട് അതെ ലൊക്കേഷൻ കൊടുത്തിരുന്നൂല്ലോ ഞാൻ ഓക്കെ ഒന്നും കുടെ പറയാം അതെ അതെ ഹൈവേ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വലിയൊരു പള്ളി കാണാം അതിൻ്റെ സൈഡിലൊരു റോഡൊണ്ട് അതെ ആ റോട്ടിക്കൂടെ സ്ട്രേയ്റ്റ് വന്നാൽ മതി അവിടൊരു ജെയാ ഫർണിച്ചറുണ്ടാവും ഒരു ജെങ്ക്ഷനാണവിടെ അവടെ ജെയാ ഫർണീച്ചറുണ്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള വീട് തന്നെയാണ്

ഒന്ന് വേഗം വരണേട്ടോ കുറച്ചെമർജെൻസി ആയിരുന്നു അത് കാരണമാണ് അതെ അതെ അതെ ലൊക്കേഷൻ കറക്റ്റായിട്ട് കൊടുത്തതായിരുന്നു ഓക്കെ മെസ്സേജ് കിട്ടിയത് കൊണ്ട് വിളിച്ചതാണ് ഒന്ന് പെട്ടന്ന് എത്തൂട്ടൊ ഓക്കെ താങ്ക് യൂ